ഉത്സവങ്ങളിൽ ഞങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് മൈസൂർ പാക്ക് പിന്നെ എണ്ണക്കടികൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ എണ്ണക്കടി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നു വച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബജി കാര്യങ്ങളൊക്കെയാണെങ്കിൽ ആദ്യം മുളക് മുറിച്ച് അതിൽ കുറച്ചു ഉപ്പിട്ട് എന്നിട്ട് മുളക് മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക എന്നുമാത്രല്ല പിന്നെ ഞങ്ങൾക്ക് മധുരമുള്ള കാര്യങ്ങളാണെങ്കിൽ കേസരി എടുക്കും പിന്നെ ലഡ്ഡു ഉണ്ടാക്കാറുണ്ട് എന്നുമാത്രമല്ല പലതരം വിശേഷ ദിവസങ്ങളിൽ പലതരം വിശേഷ ഭക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക ഹൽവ പിന്നെ ബിരിയാണി അങ്ങനെയുള്ള പലതും നീളം പോകും എന്നു മാത്രമല്ല പലതരം ഉത്സവങ്ങളിലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന മധുരം ഉള്ളതും ഉണ്ടാവാം എരിവുള്ളതും ഉണ്ടാവാം അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ടാവാം പിന്നേ കേസരി ബാത്ത് ലഡു മൈസൂർ പാക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതു പുറമേ ഞങ്ങൾക്ക് ഹൽവ പിന്നെ പൊരി പിന്നെ ജിലേബി പിന്നെ കേക്ക് പിന്നെ പാൽഗോവ മൈസൂർ ബോണ്ട അതുപോലെതന്നെ വട പരിപ്പുവട അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇതുപോലെതന്നെ പിന്നെ കൂടുതലായിട്ടും ഞങ്ങൾ കഴിക്കാറുള്ളത് ഈന്തപ്പഴം ബജ്ജിയാണ് ഈന്തപ്പഴം ബജ്ജിയും ഉണ്ട് പഴം പൊരിയും ഉണ്ടാക്കാറുണ്ട് അതുമാത്രമല്ല കൂടുതലായിട്ടും മൈസൂർ പാക്ക് ലഡ്ഡു ആണ് മധുരപലഹാരങ്ങളായിട്ട് ഉണ്ടാക്കുക പിന്നെ കേസരി ബാത്ത് കൂടുതലായിട്ടും ഉണ്ടാകും അതിനു പുറമെ വട ഉഴുന്നുവട പരിപ്പുവട ഇതൊക്കെ ഉണ്ടാവും കൂടുതലായിട്ടും കൂടുതൽ വിഭവങ്ങളും എണ്ണക്കടികളാണ് ഉണ്ടാവുക സമൂസ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക